ജനന സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അതു രണ്ടെണ്ണമാണു കൊടുത്തത് അതിൽ ഒന്ന് ഒഴിവാക്കേണ്ടതുണ്ടായി റദ്ദാക്കുകയുണ്ടായി അത് എന്തുകൊണ്ടാണെന്ന് അറിയണം അത് അതുകൊണ്ട് ഞാൻ എന്താണു ചെയ്യേണ്ടത് അതിനെനിക്കൊരു മറുപടി തരണമെന്ന് പറയുന്നു അതിനുവേണ്ടി ഞാൻ എവിടെയാണു പോകണ്ടത് അക്ഷയയിലാണോ അതോ കോർപ്പറേഷനിലാണോ അതോ ഹോസ്പിറ്റലുകളിലാണോ അത് എവിടെയാണ് ഞാൻ ചെന്നു പറയേണ്ടത് അതു നിഷേധിക്കാനുള്ള കാരണം എന്താണ് എന്നതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു ഈ ഡ്യൂപ്ലിക്കേറ്റ് ജനന സർട്ടിഫിക്കറ്റ് അപേക്ഷയിൽ ഒന്ന് റദ്ദാക്കുന്നതിനു നിങ്ങളുടെ സഹായം എനിക്ക് വാഗ്ദാനം ചെയ്യുകയും അതു ഭാവിയിൽ സങ്കീര്ണതകൾ ഒഴിവാക്കേണ്ടതുമാണ് അതിന് അതിനാവശ്യമായിട്ടുള്ള കാരണങ്ങൾ ഞാനെന്താണു ചെയ്യേണ്ടത് അത് എനിക്കൊരു എനിക്ക് ഒന്നു പറഞ്ഞുതരാമോ ഓൺലൈനായിട്ടു ചെയ്യാൻ പറ്റുമോ അതോ നേരിട്ട് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലോ കോർപ്പറേഷനിലോ പഞ്ചായത്തകളിലോ പോകണ്ടിവരുമോ അത് എനിക്കൊന്നു പറഞ്ഞുതന്നാൽ ഒരുപാട്